ആ ഹലോ ജോൺസേ എടാ ഞാൻ ലിൻറ്റുവാടാ ലിൻറ്റു നൈനാൻ നിന്റെ കൂടെ പ്ലസ് ടു വരെ പഠിച്ചത് ആ എടാ നിനക്ക് എന്നതൊക്കെയുണ്ട് വിശേഷം ആ നിനക്കിപ്പം ജോലി ഒക്കെ ആയോ ആ ഞാനിപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ആ പിന്നെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല് എന്റെ കല്ല്യാണം തീരുമാനിച്ചു ആ പെണ്ണ് എന്നാ നമ്മുടെ നാട്ടിൽ തന്നെ ആണുള്ളത് പത്തനംതിട്ടയിൽ തന്നെ ആണുള്ളത് അവളിങ്ങനെ നേഴ്സ് ആണ് ഇങ്ങനെ വിദേശ രാജ്യത്ത് പോകാന് ഉള്ള ഒരു പദ്ധതിയിലാണ് അപ്പം ഞങ്ങളുടെ കല്ല്യാണം ഈ വരുന്ന ശനിയാഴ്ച ആണ് നീയും കുടുമ്പസമേതം എത്തിയേക്കുക നിന്റെ ഭാര്യയൊക്കെ എന്നാ പറയുന്നു സുഖായിട്ടിരിക്കുന്നോ ആ മക്കൾ എന്നാ പറയുന്നു ആ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയൊ ആ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ഓ ഓ ഓ മൂത്തയാൾക്ക് മൂന്ന് വയസ്സും രണ്ടാമത്തെയാൾക്ക് ഒരു വയസ്സായതേ ഉള്ളല്ലെ ആ ഞാനത് മറന്ന് പോയി ആ നമ്മൾ ഇപ്പോൾ കുറെ ആയല്ലോ സംസാരിച്ചിട്ട് ആ എടാ പിന്നെ ഞാനാണെങ്കില് എനിക്ക് ഞാൻ കല്ല്യാണം നമ്മളുടെ സാധാരണ പള്ളിയിലൊക്കെ നടത്താനായിരുന്നു ഒരു പ്ലാൻ ഇത് പദ്ധതി ഇട്ടിരുന്നത് പക്ഷെ എന്നായിരുന്നു എനിക്കാണെങ്കിൽ വേറെ ഒരു സ്ഥലത്തോട്ട് അല്ലെങ്കിൽ വേറേ ഏതെലും നല്ല ഈ കല്ല്യാണമൊക്കെ നടക്കാൻ പറ്റിയ ഏതെലും സ്ഥലത്തോട്ട്

എന്നായിരുന്നു വിദേശ രാജ്യത്ത് പോകാനായിരുന്നു ആദ്യമേ ഞാൻ തീരുമാനിച്ചത് പക്ഷെ അത് എല്ലാവർക്കും അതിന്റെ ലഭ്യത പറ്റത്തില്ല എന്നായിരുന്നു അതുകൊണ്ട് എന്നായിരുന്നു ഞാനാണെങ്കില് ആ നമ്മുടെ ഊട്ടിയിലൊ മൂന്നാർ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു തണുത്ത പ്രദേശത്ത് അവിടുത്തെ ഏതെലും റിസോർട്ടിലൊക്കെ ആ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടൊരു ഇത് സെറ്റ് ചെയ്തിട്ടവിടെ കല്ല്യാണം നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്ലാന് അപ്പം എന്നായിരുന്നു അങ്ങനെ ഭാര്യ വീട്ടുകാരുവായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്നാ വേറെ ഏതേലും സംസ്ഥാനം നമുക്ക് നോക്കാം

അപ്പോൾ ഞാനാണെങ്കിൽ ഇതുവരെയായിട്ട് എനിക്ക് പാസ്പോർട്ട് കേരളത്തിൽ തന്നെയായിരുന്നല്ലോ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഭാര്യക്ക് പാസ്പോർട്ട് ഉണ്ട് പക്ഷേ എനിക്ക് പാസ്പോർട്ട് ഇല്ല അപ്പം ഞാൻ പാസ്പോർട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അതിന്റെ സ്റ്റാറ്റസെനിക്കിത് വരെയായിട്ടും കിട്ടിയില്ല അപ്പം അതിന്റെ ചെറിയൊര് ടെൻഷൻ ഉണ്ട് കാരണം ഡേറ്റ് ഈ ശനിയായ്ച്ചയാണേ അപ്പം പാസ്പോർട്ട് അതിന് മുമ്പ് കിട്ടിയാലേ കാര്യമുള്ളു ഇനിയൊരാഴ്ച്ചയും കൂടെ ഉള്ളൂ ഒരാഴ്ച്ചയില്ല അപ്പം എന്നായിരുന്നു ഞാനാണെങ്കിലങ്ങനക്കെയാണെന്റെ ഒരു പ്ലാ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം പാസ്പോർട്ട് കിട്ടിയാലേ നമുക്ക് അവിടെ രാജസ്ഥാനില് പോകാൻ പറ്റുകയുള്ളു അപ്പം എനിക്കാണെങ്കിൽ കല്ല്യാണത്തിന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ആ കാരണം എല്ലാം ഓക്കെയാണ് ഇനി എന്റെ പാസ്പോർട്ടും കൂടെ കിട്ടിയാൽ മതി കാരണം ഞങ്ങളെ ഫാമിലി എന്ന് വെച്ചാല് അച്ഛനും എന്റെച്ഛനു അമ്മക്കൊക്കെ അത്യാവശ്യം പാസ്പോർട്ട് അവരെല്ലാം ഗൾഫ് രാജ്യത്തായിരുന്നു ജോലി ചെയ്തതതൊക്കെ അപ്പം എന്നാ പിന്നെന്റെ വാ പിന്നവര് നിർത്തി പിന്നെ വന്നങ്ങനെ ലീവ് ഇപ്പം അവർക്ക് രണ്ട് പേർക്കും പാസ്പോർട്ട് ഉണ്ട് പിന്നെ എല്ലാം പുതുക്കി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ചേക്കുവാണ് ആ പിന്നെ ഭാര്യയുടെ വീട്ടുകാർക്കാണെങ്കിലും എല്ലാവരും കുടുംബസമേതം അവർക്കെല്ലാം പാസ്പോർട്ട് ഉള്ളതാണ് അവരെല്ലാം വിദേശത്തായിരുന്നു അപ്പം ആ എനിക്കും കൂടെ പാസ്പോർട്ട് എനിക്ക് മാത്രമെ ഇനി പാസ്പോർട്ട് കിട്ടാനുള്ളൂ അപ്പം അത് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല്യാണം മാറ്റി മാറ്റി വരില്ലെ കാരണം അവൾക്ക് ഇങ്ങനെ വിദേശത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന് കുറെ സമയം വേണം അപ്പം അതിന് മുമ്പ് കല്ല്യാണം നടത്തണം അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്കാണെൽ എന്നാ ചെയ്യണ്ടതെന്ന് എനിക്കറിയതില്ല ചെയ്യണ്ടേന്ന് വെച്ചാൽ എനിക്കിതിന്റെ സ്റ്റാറ്റസ് ഇത് വരെയായിട്ടും കിട്ടിയില്ല കാരണം അതിന്റെ ടെൻഷൻ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കാരണം എനിക്ക് ആ ഇതിന് മുൻപ് ഒന്ന് രണ്ട് കൂട്ടുകാരെ വിളിച്ച് നമ്മള് ക്ലോസ് ഫ്രണ്ട്സാണല്ലോ അപ്പം അവരെ വിളിച്ചപ്പോൾ അവര് ബിസി ആയിരുന്നു തിരക്കൊക്കെ ആയിരുന്നു പിന്നെ എന്തുകൊണ്ടോ പെട്ടെന്ന് നിന്റെ കാര്യം ഓർത്തപ്പോൾ നിന്നെ വിളിച്ച് കാര്യം നീ തിരക്ക് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്നായിരുന്നു പ്രകടിപ്പിച്ചത് കാര്യം ആശാന്റെ എന്റെ ആശങ്കയായി ഇത് പ്രകടിപ്പിച്ചത് അപ്പം തീർച്ചയായിട്ടും നിന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഒഴിവായിട്ടുണ്ട് കാരണം നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടായാലും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പം അതിന് ഒരു പരിഹാരം ഉണ്ടെന്നുള്ള രീതിയിലാണല്ലൊ നിന്റെ തിരിച്ചുള്ള ഒരു സംസാരം അതുകൊണ്ടാണ് ഞാൻ നിന്നെ നിന്നെ കറക്ട് ആ സമയത്ത് നിന്നെ വിളിച്ചത്